ഉയരം എനിക്ക് പലപ്പോഴും ഭയം തന്നെയാണ് പിന്നെ ഞാൻ അധികം ഉയരത്തിലൊന്നും അങ്ങനെ കയറാനായി പോയിട്ടില്ല എന്നാലും ഈ ഇടയ്ക്ക് ഞങ്ങൾ വീടിനടുത്തുള്ള ശാസ്താംപാറവരെ ഒന്ന് പോയിരുന്നു പക്ഷേ അവിടെ ഏറ്റവും ഉയരത്തിൽ കയറി നിന്നിട്ട് താഴോട്ട് നോക്കിയപ്പോഴത്തേക്കും എനിക്ക് ചെറിയൊരു ഭയം ഉണ്ടായി പിന്നെ എല്ലാവരും ഉണ്ടായിരുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്നാലും ഇത്തിരി അവിടെ നിന്ന് കുറച്ചുംകൂടെ താഴോട്ട് ഇറങ്ങി പോയിട്ട് അങ്ങനെ നിന്ന് നമ്മൾ ഏറ്റവും താഴേക്ക് നോക്കുമ്പോൾ വല്ലാത്തൊരിത് തോന്നി യാഥാർത്ഥത്തിൽ ഭയം അല്ല ഭയത്തേക്കാളെൻ്റെ കാലൊക്കെ ഒരുമാതിരി പെരുത്ത് വരണ ഒരു രീതിയാണ് എനിക്ക് തോന്നണത് പിന്നെ എല്ലാവരും കൂടെയൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല വലിയ ഭയമൊന്നും തോന്നാറില്ല എല്ലാവരും ഉണ്ടല്ലോയെന്നുള്ള ഒരു ധൈര്യം ഉണ്ട് പക്ഷേ ഒറ്റയ്ക്ക് പോവുകയാണെങ്കിൽ ചെലപ്പം ഭയക്കാനുള്ള സാധ്യത ഉണ്ട് കാരണം എത്രയായിരുന്നാലും ഉയരത്തിൽ നിന്ന് ഒറ്റയ്ക്ക് നോക്കുമ്പോൾ ചർക്കുകയോ വീഴുമോ എന്നൊക്കെ ഉള്ളൊരു പേടി തന്നെയാണ് എപ്പോഴും മനസ്സിലുള്ളത് എന്നാലും ഇപ്പോൾ കയറിയപ്പോൾ വലിയ പ്രശ്നമൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല